ഇന്ത്യയിലെ കാലാവസ്ഥ എന്നു പറയുന്നത് ഇന്ത്യയിൽ പൊതുവായിട്ടും രണ്ടു തരം കാലാവസ്ഥകള് അറിയാറുണ്ട് ചില പ്രദേശങ്ങളാണെങ്കില് നല്ല ചൂടുള്ള കാലാവസ്ഥ ഉഷ്ണ മേഖലയായിട്ട് കുറേ സ്ഥലങ്ങളുണ്ട് അതുപോലെ കുറച്ചു ഭാഗമെന്നു പറയുന്നത് എപ്പോഴും ശീത തണുപ്പിൻ്റെ ഒരു അവസ്ഥയാണ് കാണാറുണ്ട് പിന്നെ കേരളം എന്നു പറഞ്ഞ സംസ്ഥാനത്താണെങ്കില് അവിടെ നല്ല പ്രകൃതിരമണീയമായിട്ടും അധികം ചൂടുമില്ല അധികം തണുപ്പുമില്ല അങ്ങനുള്ളൊരു കാലാവസ്ഥയാണു കണ്ടുവരാറുള്ളത് പിന്നെ കാശ്മീർ ജമ്മു ആൻഡ് കാശ്മീർ പോലുള്ള ഭാഗങ്ങളില് എപ്പോഴും മഞ്ഞുവീഴ്ചകളും മഞ്ഞും ഒക്കെ ആയിട്ട് എപ്പോഴും തണുപ്പോടുകൂടിയ കാലാവസ്ഥയാണ് അവിടെ കാണാറുള്ളത് പിന്നെ ഗുജറാത്ത് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഡെല്ലി ഇങ്ങനെ ഡെല്ലിയൊക്കയാണെങ്കിൽ നല്ല മഞ്ഞും എപ്പോഴും രാവിലെയൊക്കെയായിട്ട് മഞ്ഞും ഒക്കെ കൂടിയൊരു കാലാവസ്ഥയാണ് കണ്ടുവരുന്നത് പിന്നെ മഞ്ഞ് മഞ്ഞ് രാവിലെ പുക മഞ്ഞും കാര്യങ്ങളൊക്കെയാണുള്ളത് അതുപോലെ പിന്നെ ആസാം മേഘാലയ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കില് കൂടുതലും തണുപ്പു സ്ഥലം തന്നെയാണ് ഒരുപാട് ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല മഴയും ഇടയ്ക്കെല്ലാം മഴയും കാര്യങ്ങളൊക്കെയുള്ള പ്രദേശങ്ങളാണ് രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലെ കാലാവസ്ഥ നന്നായി തന്നെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട് മധ്യപ്രദേശ് രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചൂട് കാലാവസ്ഥയാണു കണ്ടുവരുന്നത് ചൂടു കൂടി അവിടെ വരൾച്ചയും വെള്ളം ഇല്ലായ്മയും പട്ടിണി ദാരിദ്ര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് അതുപോലെ താഴോട്ട് തെക്കൻ ഭാഗത്തോട്ട് വന്നുകഴിഞ്ഞാൽ തമിഴ്നാട് കർണാടക ഇങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം വളരെ ചൂടു കൂടിയ ഒരു പ്രദേശമാണു കണ്ടുവരുന്നത് എന്നാൽ കേരളത്തിലെ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ചില പ്രദേശങ്ങള് അവിടെ അത്യാവശ്യം ചൂടുണ്ട് എന്നാലും ചില പ്രദേശങ്ങള് ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണെങ്കില് വളരെ നല്ല കാലാവസ്ഥ നല്ല മഴയും നല്ല തണുപ്പോടൊക്കെ കൂടിയ കാലാവസ്ഥകളാണു കണ്ടുവരാറുള്ളത് ഇങ്ങനെ വിവിധ രീതിയിൽ ഇന്ത്യയിലെ കാലാവസ്ഥ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാൽ ഓരോ ഋതുക്കളും മാറുന്നതിനനുസരിച്ച് പലടത്തും പല രീതിയിലുള്ള കാലാവസ്ഥയ്ക്കു വ്യത്യാസം സംഭവിക്കാറുണ്ട് മഴക്കാലത്ത് നല്ല മഴ ചില പ്രദേശങ്ങളിലൊക്കെ ഇടുക്കി തമിഴ്നാട് കേരളം കർണാടക ഇങ്ങനുള്ള പ്രദേശങ്ങളിലേക്ക് കാലവർഷങ്ങളില് നല്ല മഴ ലഭിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അതേ സമയം ചില പ്രദേശങ്ങള് രാജസ്ഥാൻ മധ്യപ്രദേശ് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊന്നും കാലവർഷത്തില് ഇതുപോലുള്ള മഞ്ഞ് മഴയോ കാറ്റോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ടുവരാറില്ല പിന്നെ ജമ്മു ആൻഡ് കാശ്മീരൊക്കെ ആണെങ്കിൽ മഞ്ഞുവീഴ്ച നന്നായിട്ടുള്ള സ്ഥലവും അവിടെയൊക്കെ മഞ്ഞും അധികം വെയിലോ ചൂട് കാര്യങ്ങളൊന്നും ഏൽക്കേലാത്ത സ്ഥലങ്ങളൊക്കെയാണ് അങ്ങനെ കൃഷിക്കനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ പല സ്ഥലങ്ങളിലും ഇങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു രാജ്യത്തിനു വിവിധ പ്രദേശങ്ങളിങ്ങനെ ഇന്ത്യാ മഹാരാജ്യത്തെ സംബന്ധിച്ച് പല രീതിയിലുള്ള കാലാവസ്ഥ നമുക്ക് ഇന്ത്യയിൽ കാണപ്പെടാറുണ്ട് പിന്നെ ഇന്ത്യയുടെ കാലാവസ്ഥയെപ്പറ്റിയിട്ട് പറയാണെങ്കില് പലയിടത്തും പല രീതിയിലുള്ള കാലാവസ്ഥയായതുകൊണ്ട് നമുക്ക് ഇന്ത്യ മുഴുവനായിട്ട് ഒരു കാലാവസ്ഥ ഉണ്ട് എന്നു പറയാന് നമുക്കു സാധിക്കില്ല ഇന്ത്യയുടെ ഓരോ വിവിധ ഭാഗങ്ങളിലും വിവിധ രീതിയിലുള്ള കാലാവസ്ഥയാണ് കണ്ടുവരുന്നത് കാറ്റിൻ്റെ വേഗതയും കാറ്റിൻ്റെ ഇതും അനുസരിച്ച് പല രീതിയില് കാലാവസ്ഥ ഓരോ ഋതുക്കളിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു ചില പ്രദേശങ്ങളിൽ ചൂടു കൂടുതലും ചൂടാകുമ്പോൾ കഠിനമായി ചൂടും ചില പ്രദേശങ്ങള് തണുപ്പാകുമ്പോൾ അതു കഠിനമായ തണുപ്പിലേക്കും എത്താറുണ്ട് ഇങ്ങനെ പല രീതിയിലും കാലാവസ്ഥ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അങ്ങനെയങ്ങനെ ഇന്ത്യയിലെ കാലാവസ്ഥ പലതായിട്ടാണ് കണ്ടുവരുന്നത്